ഒത്തിരി കായികതാരങ്ങൾ ഇപ്പോൾ മരുന്നുകൾ കുത്തിവെക്കുകയും അവരുടെ കായിക കായികത മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശരീരത്തിന് കേടായിട്ടുള്ള മരുന്നുകൾ കുത്തിവെച്ച് അവരുടെ കായിക കായിക കായികതാരങ്ങൾ മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി അവർ ധാരാളം സിറിഞ്ച് വിഷവസ്തുക്കൾ കുത്തിവെച്ച് അപ്പോഴത്തെ നേട്ടത്തിന് വേണ്ടി കുത്തിവെച്ച് അവർ ശരീരം നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അത് അതിൽനിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ അറിയുന്നില്ല കാരണം അപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൻ്റെയും ആ ഒരു എനർജിയുടെയും പുറത്ത് അവരതിന് വേണ്ടി മുന്നോട്ട് പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുകയും ഇതിൽനിന്ന് അവരുടെ വിജയം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിവരുന്നത് എന്നാൽ ഇതറിയാൻ ഒത്തിരി വഴികളുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ നാട് വളരുകയും ഒത്തിരി സോഷ്യൽ സോഷ്യല്പരമായിട്ടും അതായത് മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഡോക്ടർമാരുകളിലൂടെയും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലൂടെയും നമുക്കറിയാൻ പറ്റുന്നതാണിപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്കങ്ങനെ അറിഞ്ഞു അറിയാൻ പറ്റും എന്നാൽ എന്നാലും ഇതറിഞ്ഞിട്ടും ഒത്തിരി പേര് ഒത്തിരി കായികതാരങ്ങൾ ഇതിനു വേണ്ടി പിന്നെയും പിന്നെയും സിറിഞ്ചുകൾ കുത്തിവെക്കുകയും ഇതിൽനിന്നും ഇതിൽനിന്നും കിട്ടുന്ന ശക്തിയിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവർ അവരുടെ ഭാവി കളഞ്ഞ് അവർ ഇത് കുത്തിവെക്കുന്നതിനാലുള്ള ആപത്ത് ഇവർ മനസ്സിലാക്കാതെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് നേരിടുകയാണ് ഇതിൽനിന്നും നമ്മൾ മാക്സിമം ഒഴിഞ്ഞുമാറുകയും എന്നാൽ ഇപ്പോൾ ഇപ്പോൾ വലിയ താരങ്ങൾ മാത്രമല്ല കുട്ടികൾ അങ്ങനെ കുട്ടികൾ പെൺപിള്ളേർ അങ്ങനെ ഒത്തിരി പേർ ഇതിങ്ങനെ കുത്തിവെച്ച് ഇതിന് വിജയം നേടി അപ്പോഴത്തെ ആനന്ദത്തിനുവേണ്ടി അവർ അവരുടെ ശരീരഭാഗങ്ങൾ അവരെ ഈ ഈ ഒരു ഈ ഒരു മരുന്ന് കുത്തിവെപ്പിലൂടെ ഒത്തിരി രോഗങ്ങൾ വന്നേക്കാം അത് അവരുടെ ഭാവിയിലെ ജീവിതത്തെ ബാധിച്ചേക്കാം കുഞ്ഞ് അവർ അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ബാധിച്ചേക്കാം അവർക്ക് അവർക്ക് അവർക്കിത് ബാധിച്ചില്ലെങ്കിലും അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ഇത് ബാധിച്ചേക്കാം പക്ഷേ അതൊന്നും ഇവർ മനസ്സിലാക്കാതെ പിന്നെയും പിന്നെയും ഇത് ഉപയോഗിക്കുകയും ഇതിൽനിന്ന് ഇതിൽകൂടെ വിജയം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കായിക താരങ്ങളിൽ കായിക താരങ്ങളെ പറ്റി ഇതിന് ഇതിനു വേണ്ടി ഒരു ബോധവത്കരണ ക്ലാസ് എടുക്കുകയോ അങ്ങനെ അങ്ങനെ അവരിൽനിന്ന് ഇത് അവരെ ഇതിൽനിന്ന് മാറ്റി എടുക്കുകയോ അങ്ങനെ അങ്ങനെ നമുക്ക് അവരെ ഇതിൽനിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും എല്ലാ കായിക താരങ്ങളെയും പറ്റി പറയുന്നില്ല എന്നാൽ കൂടുതലും കൂടുതലും എന്ന് പറയുന്നില്ല ഒരു തൊന്നൂറ് ഒരു നൂറ് ശതമാനത്തിൽ ഒരു നാൽപത് ശതമാനം ആൾക്കാരും ഇത് കുത്തിവെച്ച് ഇതിൽനിന്ന് വിജയം കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഈ നാല്പത് ശതമാനം ആൾക്കാരെയും നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നതാണ് വലിയ സത്യം കാരണം ഇപ്പോൾ ഒരൂ ഇപ്പോൾ ഒരു ഓട്ടമത്സരത്തിൽ ഒരാൾ സിറിഞ്ച് കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല കാരണം ബാക്കി എല്ലാവരും ഓടുകയും ഇയാളും കൂട്ടത്തിൽ ഓടുകയും പക്ഷേ ഇയാളുടെ മരുന്നിൻ്റെ ഫലത്താൽ ഇയാൾ ഓടി ജയിക്കുകയും ചെയ്യുന്നു എന്നതാണ് അപ്പോൾ ഇതിൽനിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും എന്നാൽ എന്നാലും നമ്മൾ ഇതിന് വേണ്ടി തന്നെ ഒരു ബോധവത്കരണ ക്ലാസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കുക അത് മാത്രമല്ല ഇതിന് ഇതിനെ പറ്റി നമ്മൾ അറിയണമെങ്കിൽ തന്നെ ഒത്തിരി ഇതിനെ പറ്റി അറിയണമെങ്കിൽ തന്നെ പത്രങ്ങൾ വായിക്കുക ഇതിൻ ഇതിന് ഈ ഈ ഇപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ഒരു ഒരു അസുഖം വന്നു എന്നറിഞ്ഞാൽ അത് വന്നതിനുള്ള കാരണം കണ്ടെത്താൻ ശ്രമിക്കുക എങ്ങനെയാണ് ഇവർക്കിത് വന്നതെന്നും എന്തുകൊണ്ടാണ് ഇതു വന്നതെന്നും എങ്ങനെയൊക്കെയാണ് ഇത് അവരിൽ അവരിൽ ഇത് പറ്റിപിടിച്ചതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ നമ്മളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഒരു കായികതാരമല്ലാത്തതിനാൽ എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ല ഇത് ഒത്തിരി നമ്മൾ മുതിർന്ന കായികതാരങ്ങളിൽനിന്ന് ഒക്കെ അറിയാൻ പറ്റും അതിനുവേണ്ടി ശ്രമിക്കുക പക്ഷേ പക്ഷേ ഇപ്പോൾ മനുഷ്യനാരും ഇതിനുവേണ്ടി ഒത്തിരി നമ്മൾ കായികതാരത്തിനു കായികതാരത്തെ ഒത്തിരി കായിക താരം ഇപ്പോൾ മരുന്നുകൾ കുത്തി വയ്ക്കുകയും മരുന്നുങ്ങൾ കുത്തി അവർ വിജയത്തിന് വേണ്ടി അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി അവർ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ അത് അവരവരുടെ ശരീരത്തെ ബാധിക്കും എന്ന് അവർ ഒരിക്കലും വിചാരിക്കുകയില്ല ഇപ്പോൾ ഒത്തിരി രോഗങ്ങൾ വന്നു കാൻസർ അങ്ങനെ ഒത്തിരി കാല് കാലിന് കുഴപ്പങ്ങൾ ഇപ്പോൾ ഒരു സിറ്ഞ്ച് കുത്തുന്നു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സിറ്ഞ്ചിൽനിന്ന് വരുന്ന ഇൻഫെക്ഷൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് കാലുകൾ മുറിച്ചുകളയുക കൈകൾ മുറിച്ചുകളയുക അങ്ങനെ ഒത്തിരി വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് എന്നുമാത്രമല്ല അത് അവരുടെ രാജ്യത്തെ ബാധിക്കുന്നതാണ് രാജ്യത്തെ ബാധിക്കുന്നതാണ് രാജ്യത്തെ ബാധിക്കുന്നത് അതൊന്നും നമ്മൾ മനസ്സിലാക്കത്തില്ല ഈ ഇത് പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കൾ ഒരിക്കലും ഭവിഷ്യത്തുക്കൾ ഭവിഷ്യത്തുക്കൾ ആരും ഭവിഷ്യത്തുക്കൾ ആരും അറിയുകയില്ല ഭവിഷ്യത്തുക്കൾ അറിയുകയും ഭവിഷ്യത്തുക്കളെ പറ്റി നമ്മളാരും ഇതിനെ പറ്റി അറിയാതെ നമ്മൾ വീണ്ടും വീണ്ടും ശരീരത്തെ നശിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇത് ഇതിനെ ഇവർക്ക് മനസ്സിലാവാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ഒരു ബോധവൽകരണ ക്ലാസ് എടുത്ത് അവരെ ഇതിനെ പറ്റി പറയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ